വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നൊരു പ്രദേശമാണ് കുട്ടനാട് അത് പ്രത്യേകിച്ച് കൈനേരി എന്ന ഞങ്ങളുടെ പ്രദേശം അവിടെ ധാരാളം സ്വദേശികളും വിദേശികളുമായ ആൾക്കാർ വന്നുപ്പോകുന്നുണ്ട് അവിടെ കൂടുതലായിട്ട് ഹൗസ് ബോട്ട്കളിലാണ് കൂടുതൽ പിന്നെയിപ്പോൾ ഹോം സ്റ്റേകളും തുറന്നിട്ടുണ്ട് അപ്പം അവിടത്തെ പ്രത്യേക വിഭവം എന്ന് പറയുന്നത് കരിമീൻകറി കുട്ടനാടിൻ്റെ ഒരു പ്രത്യേക ഇതാണ് കരിമീൻ അതുപോലെ തന്നെ താറാവ് ഈ ഇത് രണ്ടുമാണ് അവിടത്തെ പ്രത്യേകമായ വിഭവം താറാവും കപ്പയും അതുപോലെ തന്നെ കരിമീനും പാലപ്പവും കറീം പാലപ്പവുമാണ് അവിടത്തെ പ്രത്യേക വിഭവം ഇത് കഴിക്കുവാനായിട്ട് ധാരാളം വിദേശികളും സ്വദേശികളും വരുന്നുണ്ട് അവർക്ക് ഇത് ധാരാളമായവിടെ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട് ഒത്തിരിപ്പേരും അതുപോലെ വന്ന് ജീവനോടെ ഈ മത്സ്യം മേടിച്ചോണ്ട് പോകുന്നുണ്ട് കരിമീൻ മത്സ്യം മേടിച്ചോണ്ട് പോകുന്നുണ്ട് കറിവെച്ച് ക കഴിക്കുന്നുണ്ട് അവിടെ ഇതിന് വേണ്ടിത്തന്നെ ആണ് ഒത്തിരിപ്പേർ വന്നു കുട്ടനാട് വന്നു പോകുന്നത് ഇത് കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വിഭവമാണ് ഇത് ഈ വിഭവം വിളമ്പുന്നത് നമ്മുടെ ഹൗസ് ബോട്ട്കളിലാണ് കൂടുതലും വിദേശികൾ വരുന്നത് കൂട്ടമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ധാരാളം ആൾക്കാർ ദിവസവും വന്ന് പോകുന്നുണ്ട് ഡേ ക്രൂസ്സായിട്ടും ഡേ ക്രൂസും നൈറ്റും നൈറ്റുമൊക്കെയായിട്ട് ഒത്തിരിപ്പേർ ഈ ഞങ്ങളുടെ താറവിറച്ചിം അതുപോലെ തന്നെ കരിമീനും കറിയും ഫ്രൈയ്യും ഒക്കെയായി അത് കഴിക്കുന്നതിന് വേണ്ടിത്തന്നെ ധാരാളമാൾക്കാർ കൂടുന്നു അതുപോലെ തന്നെ കുട്ടനാട്ടിൽ നാടൻ ചെത്ത്കള്ള് മായം ചേർക്കാത്ത കള്ള് ഇവയൊക്ക ധാരാളമായിട്ടവിടെ വിറ്റുപോകുന്നുണ്ട് ആൾക്കാർ ധാരാളം വന്ന് കുടിച്ച് പോകുന്നുണ്ട് നല്ല ഒരു മായൊരു ബിഫോമാണത് ഇതിന് വേണ്ടി വിനോദേശത്തുള്ളവരും വിദേശികളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവരുമൊക്കെ ധാരാളമായിട്ട് വന്ന് പോരുന്ന് അവർക്ക് ഈ വിദേശത്ത് ജോലിയുള്ളവർ വന്ന് ഇവിടെ ഇതിന് വേണ്ടി മാത്രമായി വരികയും ഇവിടുത്തെ ധാരാളം ഷോ കള്ള് ഷാപ്പ്കളുണ്ട് കള്ള് ഷാപ്പ്കളിലും അതുപോലെ തന്നെ ഹൗസ് ബോട്ട്കളിലും ചെറിയ ബോട്ട്കളിലും ഹോം സ്റ്റേകളിലുമൊക്കെ താമസിച്ച് ഈ വിഭവങ്ങളൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോകുന്നതിനായിട്ട് ഒട്ടനവധിപ്പേർ ഞങ്ങളുടെ കുട്ടനാടിൻ്റെ ഈ പ്രകൃതി ഭംഗി ഈ വിഭവങ്ങളും കഴിക്കാനും ആസ്വദിക്കുവാനുമൊക്കെയായിട്ട് ധാരാളം പേർ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നുവരുന്നുണ്ട് എല്ലാം ഒത്തിരിയേറെപ്പേർക്കിത് വളരെ ഇഷ്ടവുമാണ് പല രീതിയിലിത് ഈ കരിമീൻ ഫ്രൈയായിട്ട് അതുപോലെ ഫിഷ്മോളിയായിട്ട് അതുപോലെ തന്നെ വാഴേൽ പൊള്ളിച്ച് അതുപോലെ വാഴയിലേൽ പൊള്ളിച്ച് കൊടുക്കും പിന്നെ ഫിഷ്മോളിയെ ആയിട്ട് വെക്കാറുണ്ട് പിന്നെ ഇത് തേങ്ങ അരച്ച് കറിവെച്ച് വിളമ്പാറുണ്ടു അങ്ങനെ വിവിധതരത്തിൽ ഈ കരിമീങ്കറിയെ ഇപ്പം അതുപോലെ തന്നെ താറാവും താറാവ് സ്റ്റൂവായിട്ട് വെക്കാറുണ്ടു താറാവ് പെരളൻ കറിയായിട്ട് വെക്കാറുണ്ട് ഇതൊക്കെ കഴിക്കാനായിട്ട് പ്രധാനം കള്ള് മധുരക്കള്ളുണ്ടു അത്പോലെ തന്നെ മൂത്ത കള്ളുണ്ട് ഇവയൊക്കെ കുടിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പേർ ഞങ്ങളുടെ പ്രദേശത്തേക്ക് കടന്ന് വരാറുണ്ട് ഇത് ഒ ഇഷ്ടമ്പോലാള് നിത്യവും ഞങ്ങടെ പ്രദേശത്ത് വന്ന് ഇതിന് വേണ്ടി ചെറുവള്ളങ്ങളിലും ഹൗസ് ബോട്ട്കളിലും മറ്റ് മോട്ടർ ബോട്ട്കളിലും ഒക്കെയായി വരികെയും താമസിയ്ക്കേം ഉല്ലസിച്ച് പോകാറും ഉണ്ട് ഇതു അവിടെ മിക്ക സ്ഥലങ്ങളിലും ഇത് ധാരാളമായി